ഞാൻ ഒരു കുർത്തി വാങ്ങി എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ ആയിരുന്നു ഒരു പച്ച അപ്പോൾ അത് അന്വേഷിച്ച് നടന്നെനിക്കൊരു കുർ അങ്ങനത്തൊരു കളർ കിട്ടി ഇപ്പോന്ന് പറഞ്ഞാൽ ആ ഇതു നല്ല വർക്കുകൾ ആയിരുന്നു എംബ്രോയിഡറി വർക്കൊക്കെ നല്ലത് ഉണ്ടായിരുന്നു എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ആ പരിപാടിക്ക് ഞാൻ പോയ സമയത്ത് എൻ്റെ കൂട്ടുകാരികളൊക്കെ ഈ ഡ്രെസ് കണ്ടിട്ട് അവർക്കൊക്കെ നല്ല ഇഷ്ട്ടമായി അപ്പോൾ അവരൊക്കെ എൻ്റെയടുത്ത് ചോദിച്ചു ഇതു എവിടുന്ന വാങ്ങിയത് എന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങിയതാണെന്ന് അപ്പോൾ അവർ പറഞ്ഞു അല്ല കാശായിട്ടുണ്ടാവും എന്നാണ് അവരൊക്കെ വിചാരിച്ചതു പക്ഷേ വെറും മുന്നൂറ് രൂപേ എനിക്ക് അതിന് ആയിട്ടുള്ളൂ അപ്പം അവർക്കൊക്കെയിത് വാങ്ങണമെന്നുള്ള താല്പര്യം ആയപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് അവർക്ക് അയച്ചുകൊടുത്തു പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സായിരുന്നു കാരണം ഞാൻ അതു രണ്ടുമൂന്ന് പ്രാവശ്യം അലക്കിയിട്ടും അതിൻ്റെ കളർ ഇളക്യേ അല്ലെങ്കിൽ അതിനൊരു മങ്ങൽ വര്യേ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ സ്വന്തം പോക്കറ്റ് മണി ഉപയോഗിച്ചിട്ടുതന്നെയാണ് ഞാൻ ആ ഡ്രസ് വാങ്ങിയത് ഭർത്താവിൻ്റെയടുത്തുനിന്നോ അല്ലെ വേറെ ആരെയടുത്തു നിന്നോ കാശ് വാങ്ങിയിട്ടില്ല അങ്ങനെ നല്ല എനിക്ക് മനസ്സിനിണങ്ങിയ ഒരു ഡ്രസ് കിട്ടി അതിട്ടിട്ട് എനിക്കു നല്ല ഭംഗിയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞും ചെയ്തു